കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിലുയർന്നു വന്ന ചില പുതിയ ജോലികളും റൂളുകളും ഒക്കെ നമക്ക് സുപരിചിതമാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഈ യൂ ട്യൂബർ ബ്ലോഗർ ഏ കണ്ടൻറ്റ് ക്രിയേറ്റര് അതുപോലെന്നെ സഞ്ചാരസാഹിത്യത്തിൻ്റെ സഞ്ചാരസാഹിത്യം അത് സഞ്ചാരിയുടേതായിട്ടുള്ള രീതിയിലുള്ള നറേഷൻസ് അതുപോലന്നെ ഹാസ്യ നടൻ കോമേഡിയൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അതുപോലെതന്നെ ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റാൻഡപ്പ് കോമഡി ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോള് ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പോള് ഇന്ത്യയിലെ ചെറുപ്പക്കാര് ജീവിതത്തില് ഇത്തരം കാര്യങ്ങളൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കി അവരുടേതായിട്ടുള്ള തൊഴിൽ മേഖലകളിലെ വൈവിധ്യമായീ കാണിക്കുന്ന തീർച്ചയായിട്ടും അത് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം കാരണം നമ്മുടെ രാ നാട്ടില് എല്ലാവരും ഇപ്പോള് എൻജിനീയറും ഡോക്ടർമാരും ആകുക എന്നുള്ളതല്ലല്ലോ ഇങ്ങനുള്ള ഒരുപാട് തൊഴിൽ വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകള് വൈവിധ്യമാർന്ന അഭിരുചികളുള്ള ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിലവർക്കതില് ക്രിയേറ്റീവായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളില് എടപെടാനും ഒരു ഉപജീവനമാർഗ്ഗമായിട്ടും ഒക്കെ സ്വീകരിക്കുവാനൊക്കെ സാധിക്കുന്നു ഒരുപക്ഷേ നമ്മുടെ കരിയർ മേഖലയുടെ വളർച്ചയാണീ കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് പുതിയ പുതിയ പുത്തൻ മേഖലകളൊക്കെ കടന്നുവരുന്നു അത് തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യണം അത് ഏറ്റെടുക്കണം എന്നുള്ളതാണെൻ്റെ അഭിപ്രായം